ഞാൻ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടിണ്ട് നമുക്ക് അഭിമാനം തോന്നുന്ന ചിത്രങ്ങൾ എന്നൊന്നും പറയാനില്ല എല്ലാം ഒര് നല്ലൊരു ചിത്രങ്ങൾ തന്നെയാണ് വരയ്കുന്നത് പിന്നെ അപ്പോൾ വരയ്ക്കും തോറും നമുക്ക് കഴിവ് കൂടുതലായി വരും എന്നല്ലേ പറയുക നമ്മൾ ഒർജിനലാ ഒർജിനാലിറ്റി ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ അച്ചൻ്റെ അടുത്ത് നിന്നാണെങ്കിലും സുഹൃത്തുക്കളിൽ നിന്ന് ആണെങ്കിലും അതുകൊണ്ട് നല്ലൊരു പ്രോത്സാഹനം തന്നെയാണ് വരയിലൂടെ കിട്ടും നമ്മൾ വരയ്കുമ്പോൾ അവര് പറയും ഇനിയും വരയ്ക്കണം നന്നായിട്ട് വരയ്ക്കണം അങ്ങനെ ഒക്കെയാണ് പറയുക അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു അഭിമാനമാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തന്നെയാണ്